എനിക്ക് ഓലയിലോ ഉബറിലോ എന്തെങ്കിലും ഏന്തേലും ബുക്ക് ചെയ്തിട്ട് ഒര് യാത്ര പോകാനുണ്ട് ഇപ്പോൾ നിന്നോട് ചോദിച്ചത് നിനക്ക് അറിയാമല്ലൊ നീ എപ്പോഴും അങ്ങനെ അല്ലേ പോകുന്നത് ഒരു ക്യാബ് ബുക്ക് ചെയ്യുവാണെങ്കില് അവര് ഡ്രൈവറും പിന്നെ റേറ്റ് അവർക്ക് എത്ര റേറ്റ് ആകും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം അങ്ങനെ പോകാത്തതുകൊണ്ട് എനിക്ക് എത്ര റേറ്റ് ആകും എന്നൊന്നും അറിയില്ല അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല പിന്നെ ബസിന് പോകാൻ പറ്റില്ല അത്രയും ദൂരം തിരുവനന്തപുരത്തേക്കാണ് പോകണമെന്ന് ഉദ്ദേശിക്കുന്നത് എത്ര രൂപ ആകും എന്നു വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് വെച്ചിട്ടായിരുന്നു നീ ഒന്ന് അന്വേഷിച്ചിട്ട് പറയുവായിരുന്നു എങ്കിൽ വലിയ ഉപകാരം ആയിരുന്നു അറിയാമല്ലോ നിനക്ക് ആണെങ്കിൽ അറിയാമല്ലോ അറിയാവുന്ന ഏതേലും നല്ല ഡ്രൈവർ ആണേൽ നമുക്ക് വിശ്വസിച്ച് പോകണം ഞങ്ങൾ ലേഡീസ് ആണ് രണ്ട് മൂന്ന് പേര് പോകുന്നുണ്ട് അപ്പം നീ ഒന്ന് ചോദിക്കുവായിരുന്നു എങ്കില്